ഹലോ ഹോംലി കാറ്റേർസ് അല്ലേ അതെ അപ്പോൾ ഞാൻ അശോകാണ് അപ്പോൾ ഞാനൊരു ഓർഡറു പറയാൻവേണ്ടി വിളിച്ചതാണ് എന്റെ ഒരു സുഹൃത്തു പറഞ്ഞിട്ടാണ് ഞാൻ കടേനെ പറ്റി അറിയുന്നത് അപ്പോൾ ഞങ്ങളിവിടൊരു കോളേജിലു പഠിച്ച എല്ലാവരുംകൂടി ഒരു ഒത്തുചേരൽ നടത്തുന്നുണ്ട് എൻ്റെ വീട്ടിലായിട്ട് ഇവിടെ അടുത്ത് അപ്പോൾ ക്രിസ്മസ് പ്രമാണിച്ച് അപ്പോൾ ഞാൻ അന്നത്തേക്കുള്ള ഫുഡ് ഓർഡർ പറയാൻ വേണ്ടിട്ട് ഞാൻ വിളിച്ചത് ആണ് ആ എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെ നിങ്ങളിപ്പം എവിടെയാണ് ഓ കിഴക്കേക്കോട്ടയിൽ അല്ലെ അപ്പോൾ കുറച്ച് ദൂരമുണ്ട് എന്നാലും പടിഞ്ഞാറെകോട്ടയിൽ നിന്ന് ഒരു ഒരുകിലോമീറ്റർ നീങ്ങിയിട്ടാണ് എൻ്റെ വീട് അപ്പോൾ അപ്പോൾ ഇരുപത്തിയേഴാം തിയതിയാണ് പാർട്ടി വരുന്നത് അന്നത്തേക്കാണ് ഫുഡ് ഓർഡർ പറയാൻ ഞാൻ വിളിച്ചത് അപ്പോൾ ഞാൻ ഓർഡർ പറയാം അപ്പോൾ നൂറുപേരാണ് ക്ലാസിലെല്ലാവരും കോളേജിൽ പഠിച്ച എല്ലാവരുംകൂടി വെക്കുന്ന മീറ്റിംഗ് ആയത് കൊണ്ട് നൂറുപേരുണ്ട് അപ്പോൾ നൂറുപേരില് തൊണ്ണൂറ് നോൺവെജ് കഴിക്കുന്നവരും പത്ത് വെജ് കഴിക്കുന്നവരുമെന്നാണ് നമ്മുടെ കണക്ക് അപ്പോൾ അവർക്കുള്ള ഒരു ഫുഡാണ് നമ്മളുദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു പെർ പ്ലെയ്റ്റോ ഒരാൾക്ക് നോൺവെജിന് മുന്നൂറും വെജ്ജിനൊരു ഇരുന്നൂറും ആണെങ്കിൽ നമുക്കൊരു അത്യാവശ്യം തരക്കേടില്ലാത്തൊരു പാർട്ടിയാകുകയില്ലെ ഓക്കെ അപ്പോൾ അത് മതി ആ ഒരു റേഞ്ചിലാണ് നമ്മള് നോക്കുന്നത് അപ്പോൾ മുന്നൂറ് രൂപയ്ക്കിപ്പോൾ മെയിൻലി റൈസ് നമുക്ക് പറയാം ഇപ്പോൾ ഫ്രൈഡ് റൈസ് മതിയാകും ഫ്രൈഡ് റൈസുണ്ടോ ഓ അതെയോ അ അപ്പോൾ ഒരു നൂറുപേർക്കുള്ള രീതിയിൽ ഒരു റൈസ് എടുത്തോളു അപ്പോൾ അപ്പോൾ ഒരു നൂറുപേർക്കെന്ന് ഉള്ള രീതിയിൽ റൈസും ഈ കറികളെന്ന് പറയുമ്പോൾ ഈ വെജിറ്റേറിയൻസ് നോൺ വെജിറ്റേറിയൻസിനായി നമുക്ക് ചിക്കൻ കറിയും ബീഫ് റോസ്റ്റുമാണ് നമ്മള് ഉദ്ദേശിക്കുന്നത് അത് രണ്ടും കൂടിയായാൽ ഒക്കെ പിന്നെ വെജിറ്റേറിയൻസിന് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ പനീർ ടിക്ക മസാല ആണ് ഉദേശിക്കുന്നത് അപ്പോൾ ഇത് ഇതെല്ലാം കൂടി അന്ന് നിങ്ങൾക്ക് ഇരുപത്തിയേഴാം തിയതിലേക്ക് തയ്യാറാക്കാൻ പറ്റുവോ ഓക്കേ അപ്പം ഇരുപത്തിയേഴാം തിയതി അപ്പം അപ്പം നമ്മുടെ കണക്കനുസരിച്ച് നൂറുപേർക്ക് റൈസ് അതില് തന്നെ തൊണ്ണൂറു പേർക്ക് ചിക്കൻ കറിയും ബീഫ് റോസ്റ്റും പിന്നെ ബാക്കി പത്ത് പേർക്ക് കറീൽ പനീർ ടിക്ക മസാലയാണ് നമ്മടെ ഇപ്പളത്തെ കണക്ക് ഓക്കേ പിന്നെ റിഫ്രഷ്മെന്റ്സിനായി നമുക്ക് ഒരു ജ്യൂസ് വരുന്നവർക്ക് ഒരു വെൽക്കം ഡ്രിങ്ക് മാതിരി കൊടുക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഓറഞ്ച് ജ്യൂസ് തയ്യാറാക്കാൻ പറ്റുവോ ഒക്കെ അപ്പോൾ അതുംകൂടി ഉൾപ്പെടുത്തിക്കൊള്ളൂ ഓറഞ്ച് ജ്യൂസ് നൂറു പേർക്ക് അത് ആയി അപ്പോൾ പിന്നെ ഡെസ്സേർട്ട്സുനുള്ള രീതിയിൽ ഭക്ഷണം കഴിഞ്ഞിട്ട് കുറച്ച് ഐ ഐസ്ക്രീമും അതും നൂറ് പേർക്ക് എന്നുള്ള കണക്കില് റെഡി ആക്കാൻ ഓക്കേ അപ്പോൾ അത് ഓക്കേ ഇനി ആ അപ്പോൾ ഇത് ഇത്രയാണ് നമ്മുടെ ഓർഡർ വരുന്നത് ഇരുപത്തിയേഴാം തിയതിയിലേക്ക് റെഡി ആകുകയില്ലെ ഓക്കെ അപ്പോൾ പിന്നെ ആ ലൊക്കേഷൻ ഞാൻ പറയാം അത് വെസ്റ്റ്ഫോർട്ടിൽ നിന്ന് വെസ്റ്റ്ഫോർട്ടിലേക്ക് നിങ്ങള് വന്നിട്ട് നാലാമത്തെ റൈറ്റ് വെസ്റ്റ്ഫോർട്ടിൽ നിന്ന് നേ കളക്ടറേറ്റിലോട്ട് പോകുമ്പോൾ നാലാമത്തെ റൈറ്റിലാണ് എൻ്റെ വീട് ഓക്കെ അവിടെ ആ അവിടെ എത്തിയിട്ട് എന്നെ വിളിച്ചാലും മതി ആ സമയത്ത് ആ ആ ഞാൻ വരാം ഞാൻ വഴി പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കേ പിന്നെ പ്രൈസിൻ്റെ കാര്യമൊക്കെ പ്രൈസ് എത്രയാകും ഇത്രപേരുടെ ഇത് വെച്ചിട്ട് അത് നൂറുപേർക്ക് റൈസ് തൊണ്ണൂറുപേർക്ക് നോൺവെജിൻ്റെ കറികള് പത്ത്പേർക്ക് വെജിൻ്റെ കറി പിന്നെ പിന്നൊരു ഓറഞ്ച് ജ്യൂസ് വെൽക്കം ഡ്രിങ്ക് പിന്നെ ഒരു റിഫ്രഷ് ഡെസ്സേർട്ടായിട്ട് ഐസ്ക്രീം ഒക്കെ ഇത് എല്ലാംകൂടി ചേർന്ന് മുപ്പതോ മുപ്പത് ലേശം കൂടുതലല്ലേ ഏയ് ക്രിസ്മസ് ഒക്കെ ആയിട്ട് കിഴിവൊന്നുമില്ലേ സഹോദരാ എന്നാലും കുറച്ചൊക്കെ നമ്മളൊക്കെ ക്രിസ്മസായിട്ട് എന്താണ് ചേട്ടാ ഒരു ഇരുപത്തി ഒമ്പതോ എന്താ ചേട്ടാ ഒരു ഇരുപത്തിയെട്ടോ ഇരുപത്തിയേഴേ അഞ്ഞൂറൂ എങ്കിലും പറ്റില്ലേ എന്താ ഒരു ആ അപ്പം ഒരു എന്നാൽ ഇരുപത്തിയെട്ട് ഓക്കേ ആണോ ഓ ക്കേ അപ്പോൾ റെഡി ആയില്ലെ അപ്പോൾ ഇത്രയും പേർക്ക് ഇരുപത്തേഴാം തിയതി ഫൂ ചേട്ടൻ റെഡ് റെഡിയല്ലേ അപ്പോൾ എല്ലാം ഓക്കെ ആയില്ലേ അപ്പോൾ ലൊക്കേഷൻ വേണമെങ്കിൽ ചേട്ടന് ഞാൻ വാട്സ്ആപ്പിൽ അയച്ചുതരാം ആ ചേട്ടൻ്റെ നമ്പർ ഈ നമ്പറിലേക്കല്ലേ ഇതിൽ ഞാൻ വാട്സ്ആപ്പിൽ അയച്ച് തരാം അപ്പോൾ വല്ല അഡ്വാൻസ് വേണോ എത്രയാണ് ഇരുപത്തിയേഴും പത്ത് മതിയോ അഡ്വാൻസ് അപ്പോൾ ഓക്കെ അത് ഞാൻ എങ്ങനെയാണ് ഈ വാട്സ് ചെക്ക് വേണോ അതോ ഞാൻ ഞാൻ ഗൂഗിൾ പേ ചെയ്യണോ ഏതാണ് വേണ്ടേ ഓ ഗൂഗിൾ പേ മതിയല്ലേ ആ അത് ഏതാ നമ്പറ് ഓക്കെ ഈ നമ്പറ് തന്നെയാണോ ആ അപ്പോൾ ഞാൻ ഇന്ന് ദേ ഇപ്പോൾ തന്നെ അയക്കാം ദേ ദേ ഇപ്പോൾ അയയ്ക്കാം അപ്പോൾ എല്ലാം ശരിയല്ലേ എൻറെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് അപ്പോൾ അവര് പറഞ്ഞത് നല്ല ഫുഡാന്ന് അപ്പോൾ ഞങ്ങളും ട്രൈ ചെയ്യാമെന്നു വെച്ചു അപ്പോൾ താങ്ക്യൂ ചേട്ടാ അപ്പോൾ നമുക്ക് ഇനി ഞാൻ പിന്നെ വിളിക്കാം ഒരു ചേട്ടൻ വല്ല ഓർഡറിന്റെ സംശയമുണ്ടെങ്കിൽ വീണ്ടും വിളിച്ചോളു കേട്ടോ ഓക്കെ ശരി അപ്പോൾ താങ്ക്യൂ